ഈ കാലഘട്ടത്തിൽ ഡിജിറ്റൽ ഗെയിമുകളൊക്കെ ഒത്തിരി ഡിജിറ്റൽ ഗെയിമുകൾ നമ്മുടെ ഇവിടെയൊക്കെ വന്നു ഡിജിറ്റൽ ഗെയിമുകൾ വന്നതോടുകൂടി ആളുക ആളുകളൊത്തിരി മിങ്കിൾ ഒത്തിരി സംസാരിക്കുന്ന രീതിയിലൊത്തിരി പുറകോട്ടു പോയി ഇപ്പം ഒരു വ്യക്തി മറ്റൊരാളെ കണ്ടാൽ പുഞ്ചിരിക്കാതെയും ഒക്കെ ആ ഒരു രീതിയിലേക്കു മാറി പഴയകാലത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ കാലത്തിൽ ഡിജിറ്റൽ ഗെയിമുകളൊക്കെ കുറവായിരുന്നു ഡിജിറ്റൽ ഗെയിമുകളാണ് കാലഘട്ടത്തിലില്ല എന്നു വേണമെങ്കിൽത്തന്നെ പറയാൻ സാധിക്കും ആ കാലഘട്ടത്തിലൊക്കെ ഒരാൾ മറ്റൊരു വ്യക്തിയെക്കണ്ടു കഴിഞ്ഞാൽ പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും അവരുടെ സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും എന്തൊക്കെ ആയാലുമത് മറ്റുള്ളവരോടു പറയും അതുപോലെതന്നെ ആ വ്യക്തി തിരിച്ചും അയാളോടു സംസാരിക്കുകയും ചെയ്യുമായിരുന്നു ഇപ്പോൾ ഡിജിറ്റൽ ഗെയ്മുകൾ വന്നതോടു കൂടി ഒരു വ്യക്തി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറ ഇറങ്ങാതെ ആയി ആ ഒരു വ്യക്തിയോടാണ് റൂമിൽ നിന്നു ഡിജിറ്റൽ ഗെയിം കളിക്കുകയും പുറത്തിറങ്ങാതെ മറ്റുള്ള വ്യക്തികളോടു സംസാരിക്കാത്ത രീതിയിലോട്ടായി പിന്നെ എന്തു കൊണ്ടെന്നു വെച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഗെയിമുകളൊത്തിരി വന്നതോടുകൂടി അവർ കൂടുതലും ഫോണിലും ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറായാലും ഇതിനൊക്കെ അഡിക്റ്റായി ഗെയിമുകൾക്കും അഡിക്റ്റായി അപ്പം ഗെയിമുകളിലുള്ള ആ സന്തോഷം അവർക്ക് കിട്ടിയതോടു കൂടി മറ്റുള്ള വെളിയിൽ നിന്നു വന്നു സംസാരിക്കാതെ ഒന്നുമായി ഇപ്പം നോക്കാണെങ്കിൽ സ്വന്തം വീട്ടിലെ മാതാപിതാക്കളോടായാലും അപ്പം ഡിജിറ്റൽ ഗെയ്മൊക്കെ കളിക്കുന്ന കുട്ടികളൊക്കെ സംസാരിക്കാതെ ആയി അവർ കൂടുതലും ഒരു മുറിക്കാത്തിരുന്ന് കതകൊക്കെ അടച്ച് ഒറ്റപ്പെട്ട് ഗെയിമൊക്കെ കളിച്ചു അതിൽ നിന്നവർ സന്തോഷം കണ്ടെത്തുവാനൊക്കെയാണ് ശ്രമിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് അവരാ ഡിജിറ്റൽ ഗെയിമുകൾ കാണുന്നതിലൂടെ അവർക്കൊത്തിരി മാനസ്സികമായിട്ടൊക്കെ സന്തോഷം കിട്ടുന്നുണ്ടെങ്കിലും അവരുടെ പഠനകാര്യത്തിലായാലും മറ്റൊരു മറ്റുകാര്യത്തിലായാലും ഇതിന്റെ കാരണം അവർ പുറകോട്ടു പോകാറുണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഫ്രീ ഫയർ പോലെയുള്ള ഗെയിമൊക്കെ കാരണം ഒക്കെയാണ് കൂടുതലും ഫ്രീ ഫയർ പബ് ജി പോലെയുള്ള ഡിജിറ്റൽ ഗെയിമുകൾ കാരണമാണ് കൂടുതൽ വ്യക്തികളും മറ്റുള്ളവരോട് ഇടപഴകാതെ വീട്ടിൽ തന്നെ ഒറ്റപ്പെട്ടു വീട്ടിൽ തന്നെ മാറി ഇരിക്കുന്നത് ഈ ഒരു ഗെയിം കാരണം പല രീതിയിൽ കുട്ടികൾ അപകടത്തിൽ പെട്ടിട്ടുമുണ്ട് പല രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന കുട്ടികളുണ്ട് ഇതു പോലത്തെ ഡിജിറ്റൽ ഗെയിമുകൾ കാരണം പല ആത്മഹത്യ മാത്രമല്ല ആത്മഹത്യ ചെയ്ത് മരിച്ചവരുമുണ്ട് ആ ആ മൽ പല രീതിയിൽ മരിച്ചവരുണ്ട് ഈ ലോകത്താമ ആകെ ഏകദേശം ഒരു ആയിരത്തിൻ മേലെ കുട്ടികൾ ഡിജിറ്റൽ ഗെയിമിന്റെ ഉപയോഗം മൂ മൂലം ആത്മഹത്യ ചെയ്തു മരിച്ചവരൊക്കെയുണ്ട് ഇപ്പം ഒത്തിരി ഗെയിമുകൾ ഇവരെ മരണത്തിലേക്കു തള്ളി വിടുന്നു ഇതൊക്കെ നിർത്തണമെങ്കിൽ കു മാതാപിതാക്കൾ ഇതുപോലത്തുള്ള കുട്ടികളായാലും ആർക്കായാലും ഇതുപോലത്തുള്ള ചെറുപ്രായത്തിൽ ഫോണായാലും ലാപ്ടോപ്പായാലും ഒക്കെ മേടിച്ചു കൊടുക്കാതിരിക്കുക അഥവാ ഇതുപോലത്തുള്ള മാതാപിതാക്കൾ കുട്ടികൾക്ക് ഇതുപോലത്തുള്ള ഫോൺ മൊബൈൽ ഫോണുകളൊക്കെ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൊബൈൽ ഫോണിൽ ഇതുപോലെയുള്ള ഡിജിറ്റൽ ഗെയിമുകൾ ഒത്തിരി കാണാതെ ഇരിക്കുക അപ്പോൾ ഒത്തിരി കൊണ്ടൊന്നും ഒത്തിരി ഡിജിറ്റൽ ഗെയിമുകൾ കുട്ടികൾ ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ അത് ഡി ഡിലിറ്റ് ചെയ്ത് അതിനെ തടയാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇതുപോലത്തുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ കുട്ടികൾ ഇതുപോലത്തെ ഡിജിറ്റൽ ഗെയിമുകളിൽ നിന്നുള്ള ഇതു പോലത്തുള്ളൊരു ഇതിൽ നിന്ന് കുട്ടികൾ പിന്മാറത്തുള്ളു ഇതിൽ അവരുടെ പഠന കാര്യത്തിലായാലും അവരുടെ ശാരീരികമായ നല്ല രീതിയിലുള്ള എന്തു കാര്യത്തിലായാലും അവർക്ക് നല്ലതിൽ മുൻപോട്ടു പോകണമെങ്കിൽ ഇതുപോലത്തെ ഡിജിറ്റൽ ഗെയിമുകളിൽ നിന്നവർ പിന്മാറുകയും മറ്റ് വീടിൽ നിന്നും പുറത്തിറങ്ങി മറ്റു രീതിയിലുള്ള ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ തുടങ്ങിയ ശരീരമനങ്ങുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഗെയിമുകളും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ഫുട്ബോൾ പോലെയുള്ള ഗെയിമുകളൊക്കെ കളിച്ചാൽത്തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വ്യായാമം പ്രവൃത്തിക്കൾ ചെയ്താൽത്തന്നെ ഒത്തിരി നമുക്ക് ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടും ഡിജിറ്റൽ ഗെയിമുകളൊക്കെ കളിച്ച് തന്നെ കൂടുതലും കണ്ണിൽ മുഖത്തുള്ള കണ്ണിന്റെ ഭാഗത്തു തന്നെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാൻ സാധിക്കും ഇപ്പം ഡിജിറ്റൽ ഗെയിമുകളൊത്തിരി നേരം ഫോണിലും കമ്പ്യൂട്ടറിലായാലും നോക്കിക്കൊണ്ടിരിക്കുമ്പം അവരുടെ കൺ അവരുടെ കാഴ്ച്ചയിൽത്തന്നെ ബാധിക്കും ഇതൊക്കെ അവരുടെ കാഴ്ച്ചയിൽത്തന്നെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ഗെയിമുകൾ കാരണം കാഴ്ച ബാധിച്ച ഒത്തിരി വ്യക്തികൾ വരെ ഉണ്ട് നമ്മൾ ഒത്തിരി നേരം നമ്മൾ വാർത്തക്ക് വാർത്തയിലൊക്കെ നോക്കിയാൽത്തന്നെ നമ്മൾ കാണാൻ കഴിയും ഇപ്പം ഡിജിറ്റൽ ഗെയിമുകൾ കാരണം കാഴ്ച നഷ്ടപ്പെട്ടവരും അല്ലെങ്കിൽ ഭാ ഭാഗികമായിട്ടു കാഴ്ച നഷ്ടപ്പെട്ടവരും പൂർണ്ണമായിട്ട് കാഷ് കാഴ്ച നഷ്ടപ്പെട്ട ഒത്തിരി വ്യക്തികളും ഒത്തിരി കുട്ടികളുമുണ്ട് ഡിജിറ്റൽ ഗെയിം കാരണം ഒത്തിരി കുട്ടികൾക്ക് പഠിക്കാതെ ആകുന്നു കൂടുതൽ കുട്ടികളും ഡിജിറ്റലി ഡിജിറ്റൽ ഗെയിമുകൾ കാരണം സ്കൂളിൽപ്പോലും പോകാതെ കണ്ട് വീട്ടിലിരുന്നു മുറിയുമടച്ചിട്ടിരുന്നു ഡിജിറ്റൽ ഗെയിമുകൾ കളിക്കുന്നു അതുകൊണ്ടുതന്നെ ഇവർക്ക് പഠനകാര്യത്തിൽ ഇവർ പല രീതിയിൽ പുറകോട്ടു പോകുന്നതായിട്ടും എന്നാലും ഇ പുതിയ സർവേകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഡിജിറ്റൽ കുട്ടികളിൽ നിന്നായാലും മുതിർന്ന വ്യക്തികളായാലും ഡിജിറ്റൽ ഗെയിമുകളിൽ നിന്ന് കളിച്ചാലും കുഴപ്പമല്ല പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് അധികനേരം കളിക്കുമ്പോളാണ് ഇതുപോലത്തുള്ള പ്രശ്നങ്ങളുണ്ടാകാറുള്ളത് ഇപ്പം കൂടുതൽ രാജ്യങ്ങൾ ഡിജിറ്റൽ ഗെയിമുകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഇതുപോലത്തുള്ള പ്രശ്നങ്ങൾ ആത്മഹത്യയായാലും കൂടുതൽ കുട്ടികളും വലിയ ആൾക്കാരും ഡിജിറ്റൽ ഗെയിമുകൾ കാരണം ഇതുപോലത്തുള്ള ആത്മഹത്യയിലോട്ടൊക്കെ കടന്നു പോകുന്നതു കൊണ്ടു തന്നെ കൂടുതൽ രാജ്യങ്ങളും ഡിജിറ്റൽ ഗെയിമുകൾ ഈ സമയത്തു പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിന്റെ കാരണങ്ങൾ അവർ അത്മഹത്യാശ്രമം ഇതൊക്കെത്തന്നെയാണ് പ്രധാനമായിട്ടും ഡിജി ഡിജിറ്റൽ ഗെയിമവർ പ്രോത്സാഹിപ്പിക്കാതിരിക്കാനുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ